നമ്മുടെ ജില്ലയില് കാലാവസ്ഥ എന്ന് പാറയുബോൾ ശരിക്കും നാലായിട്ട് തിരിക്കാൻ പറ്റും വേനൽകാലമുണ്ട് മഴക്കാലമുണ്ട് കാറ്റുണ്ട് മഞ്ഞുണ്ട് ഇതില് പക്ഷെ ഇപ്പൊ കുറച്ചയിട്ട് നമുക്ക് എന്താ പറയ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മഴ വേനല് ആ ഒരു സീസണിൻ്റെ ഒപ്പം ബാക്കിയുള്ള സീസണിലേക്ക് ഈ മഴയും വേനലും കുറച്ചും കൂടെ കുടുതലായിട്ട് കയറി എന്ന് വേണമെങ്കിൽ പായാൻ പറ്റും ഇൻ മുൻപ് നമുക്ക് പറയാൻ പറ്റുമ്പോൾ ഫെബ്രുവരി തൊട്ട് മെയ് വരെ വേനല് ജൂൺ തൊട്ട് ഒക്ടോബർ നവംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ വരെ മഴ പിന്നെ ഒക്ടോബർ നവംബറില് വേ കാറ്റ് പിന്നെ ഡിസംബർ ജനുവരി മാസം മാർച്ച് അല്ല ഫെബ്രുവരി ആ മാസം വരെ മഞ്ഞ് ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ മഴ ചില സമയത്ത് വേനൽമഴയുടെ ശക്തി ബാധിച്ച് അത് മഴക്കാലത്തിൻ്റെ ഒരു എഫക്റ്റിൽ ഒക്കെ പോകാറുണ്ട് പിന്നെ മഴയുള്ള മഴ വരേണ്ട സമയത് മഴ കൃത്യമായിട്ട് വരുന്നില്ല അതായത് മഴ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരേണ്ട മഴ അഗസ്റ്റിലേക്ക് പോകാറുണ്ട് ചിലസമയത് ഓഗസ്റ്റിൽ ഒന്നും കിട്ടില്ല പിന്നെ ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് അങ്ങനെ മാറിപോകാറുണ്ട് അങ്ങനെ ചില കുറച്ചായിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് ഉള്ള രീതിയിൽ ഒന്നുമില്ല ഇവിടെ എന്താ പറയുക മഴക്കാലം അങ്ങനത്തെ ഇത് വരുന്നത് പൊതുവെ നമ്മുടെ പാലക്കാട് അറിയപ്പെടുന്നത് ചൂടിന് പേരുകേട്ട ജില്ലയായിട്ടാണ് നമ്മുടെ പാലക്കാട് എന്താ പറയുക അറിഞ്ഞു അറിയപ്പെടുന്നത് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ ബാക്കിയെല്ലാ നാടിനെയും അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബാക്കിയെല്ലാ ജില്ലകളെയും വെച്ച് നോക്കുവാണ് എന്ന് പാറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ല തന്നെയാണ് നമ്മുടെ പാലക്കാട് ജില്ല